സാധാരണയായി മാധ്യമങ്ങൾ ട്വൻ്റി ഫോർ ആണ് കാണുന്നത് എല്ലാവരും പറയുന്നു അതാണ് യഥാർഥ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട് അത് എല്ലാ ദിവസവും അതിനെപ്പറ്റി കേൾക്കുകയും ആ പറയുന്ന കാര്യങ്ങൾ ഒത്തിരിയൊക്കെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിലാണ് യഥാർത്ഥ പിന്നെ അതുപോലെത്തന്നെ ഈ

കൃത്യമായി കേള്ക്കാനും അതനുസരിച്ച് ഇപ്പോള് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിശദമായി കേൾക്കാനും അതനുസരിച്ച് എന്താണ് ലോകത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം അതത് പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഗ്രഹിക്കാനും അത് സാധിക്കും അല്ലാതെ ആ മാറ്റങ്ങളൊക്കെ ചിലപ്പോള് മലയാളം മറുനാടനും ട്വൻറി ഫോറും ഒക്കെ കേള്ക്കും അതിൻ്റെയകത്ത് സത്യം കൂടുതൽ സത്യമാണെന്നും വസ്തുതകൾ യഥാർത്ഥമായി

അത് മനുഷ്യൻ്റെ എല്ലാ ജീവിതരീതികളും ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപകടങ്ങളും അതുപോലെത്തന്നെ വന്യമൃഗങ്ങളുടെ എല്ലാ ആക്രമണങ്ങളും ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യുദ്ധത്തെപ്പറ്റിയും പ്രധാനമന്ത്രി പറയുന്നതുമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായും കാര്യം കൃത്യമായ രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നത് കേൾക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ പട്ടാളക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതുപോലെത്തന്നെ അവർക്ക് ഭക്ഷണമില്ലാതെ അവർ കഷ്ടപ്പെടുന്ന ആ മനുഷ്യരുടെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോള് ഇതെല്ലാം മനസ്സിലാക്കാൻ മാധ്യമങ്ങളെ കൊണ്ടേ സാധ്യമാകുകയുള്ളൂ ഇങ്ങനെ മുന്നോട്ട് ജീവിതരീതി മാധ്യമങ്ങൾ വഴി എല്ലാ വിവരങ്ങളും ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായി അറിയാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഏത് വശത്തുകൂടി കടന്നാലാണെന്നപോലെത്തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാന് അതനുസരിച്ച് ലോകം ഈ പ്രദേശത്തെയൊക്കെ എങ്ങനെ കരുപ്പിടിപ്പിക്കാമെന്നും ജീവിതത്തിൽ ഈ അനിഷ്ഠ സംഭവങ്ങളുണ്ടാകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളെപ്പറ്റിയൊക്കെ ചാനല് കൃത്യമായി പറയാറുണ്ട് അതുകൊണ്ട് ആ ചാനലുകളൊക്കെ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എല്ലാ പ്രദേശത്തും നടക്കുന്ന സംഭവങ്ങളുടെ യഥാർത്ഥ രൂപം യഥാർത്ഥ വസ്തുതയാണ് അവർ വെളിപ്പെടുത്തുന്നത് ഈ വെളിപ്പെടുത്തലുകള് മാധ്യമങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാനും എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതലായി കേൾക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മാധ്യമങ്ങള് ട്വൻ്റി ഫോറാണ് ഇഷ്ടപ്പെടുന്നത് അല്ലാത്ത മാധ്യമങ്ങള് കേൾക്കാറില്ല ഇതാണ് ഇപ്പോള് അത് എന്തുവന്നാലും എല്ലാം കൃത്യമായിട്ട് അവർ കൃത്യമായ രീതിയിൽ മനുഷ്യർക്ക് മനുഷ്യരോട് അത് വെളിപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ മനുഷ്യർക്ക് അതനുസരിച്ച് മുന്നോട്ടുപോകാനും ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായി അതാത് സമയത്ത് അറിവ് ലഭിക്കും അവരങ്ങനെ പല സമയത്തും അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ്സ് ഉണ്ട് ഈവനിംഗ് ഉണ്ട് മിഡ്ഡേ ഉണ്ട് എല്ലാമുള്ളതുകൊണ്ട് എല്ലാ സമയത്തെയും പ്രക്ഷേപണം കേൾക്കാനും പിന്നെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ടും സാധിക്കും അതുകൊണ്ട് മറുനാടൻ മലയാളിയെപ്പറ്റിയും എല്ലാസമയത്തും ഞാൻ കേൾക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താനും നമുക്ക് ലോകത്തില് നടക്കുന്ന സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാനും മറ്റുള്ളവരുടെ ഈ അപകടത്തിലും ആപത്തിലും മരിക്കുന്നവരുടെയും നുഴഞ്ഞുകയറ്റക്കാരുടെയും എല്ലാവരുടെയും വിവരങ്ങളുമെല്ലാം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്